യോഗ എന്ന് പറയുന്നത് ഒരു വ്യായാമത്തിനപ്പുറം തീർച്ചയായും നമ്മുടെ മനസ്സിനേയും ശരീരത്തിനേയും ഉന്മേഷിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് തീർച്ചയായും എല്ലാവരും യോഗ ചെയ്യണമെന്നാണ് ഞാൻ പറയാറുള്ളത് വ്യായാമത്തിനപ്പുറം തീർച്ചയായും ഒരു വ്യക്തിയെ അതെ ഒരു വ്യക്തിയെ ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ യോഗക്ക് സാധിക്കും കാരണം യോഗയിലൂടെ ആ ഒരു വ്യക്തിക്ക് മനസ്സമാധാനം അല്ലെങ്കിൽ കുറച്ച് ശാന്തത ലഭിക്കുന്നൊരു ലഭിക്കുന്നൊരു പ്രക്രിയയാണ് യോഗ എന്നു പറയുന്നത് തീർച്ചയായും നമുക്ക് തീർച്ചയായും യോഗ നമ്മൾ അഭ്യസിക്കുകയാണെങ്കിൽ നമുക്ക് ശാരീരികമായും മാനസികമായിട്ടും ഒരുപാട് ഗുണങ്ങൾ ഒരുപാട് നേട്ടങ്ങളുണ്ട് അങ്ങനെ യോഗ എന്ന് പറയുമ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ വ്യായാമത്തിനപ്പുറം ശരീരത്തിന് കൊടുക്കുന്ന വ്യായാമത്തിനപ്പുറം നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരുപാട് നല്ലതാണ് യോഗ എന്ന് പറയുന്നത്